ഇവിടെ മഴക്കാലത്ത് പ്രളയം വന്നിട്ടുണ്ട് പതിനെട്ടിൽ ഭയങ്കര ഇതായിരുന്നു വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർക്ക് താമസിക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറെ ആൾക്കാർ മരണത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് വെള്ളപ്പൊക്കമായാൽ പിന്നെ മഞ്ഞു കാലം ഭയങ്കര ഞങ്ങൾ ഒരു പ്രാവശ്യം ബോംബെയിൽ പോയി അവിടെ അതാണ് ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഇതായി മഴ മഞ്ഞു കാലത്ത് ഇവിടെയും കാലൊക്കെ ഇങ്ങനെ വിണ്ടിട്ട് കാലിന്മേൽ ഒക്കെ ഇങ്ങനെ വര വീണിട്ട് മുറിയായി അതിനൊക്കെ മരുന്നും ഇതൊക്കെ ആയിട്ട് മഞ്ഞുകാലത്ത് ഭയങ്കര പ്രശ്നമാണ് കാൽ വിള്ളൽ വിള്ളൽ പിന്നെ വേനൽക്കാലത്ത് ഭയങ്കര ഭയങ്കര ചൂടാണ് ചൂട് ഉണ്ടായിട്ട് ഈ പുറത്തും എല്ലായിടത്തും മുറിയായിട്ടും എല്ലാതും ചൂട് ചൂട് തട്ടിയിട്ട് ഭയങ്കര ഇതാണ് ആൾക്കാർക്ക് പണിക്കൊന്നും പോവാതെ രാവിലെ ആറുമണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് പതിനൊന്ന് മണിവരെ ആണ് എല്ലാവരും പണിക്കു പോയിരുന്നത് വെയിൽ കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അത്രയ്ക്കും വേനലായിരുന്നു പിന്നെ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ജലനിധി ഉണ്ട് പിന്നെ കുഴൽ കിണറും എല്ലാമുണ്ട് പക്ഷേ കറണ്ടിൻ്റെ പ്രശ്നമായിട്ട് വെള്ളം കിട്ടാനും ബുദ്ധിമുട്ടേനു വേനൽക്കാലം ഭയങ്കര ഗതികേടായിരുന്നു വെള്ളത്തിന് കറണ്ടിൻ്റെ വോൾട്ടേജ് ഇല്ലാത്തത് കൊണ്ട് വെള്ളം അടിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാഴ്ചക്ക് വെള്ളമില്ലാതെ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു പിന്നെ ഇപ്പോൾ പിന്നെ മഴക്കാലമാണ് പറഞ്ഞിട്ട് എന്താണ് ഒരു ദിവസം വേനൽക്കാലം പോലെ തന്നെ പിറ്റേ ദിവസം മഴ ഒന്ന് ചാറും മഴയൊന്നും അധികം ഇല്ല ഇപ്പോൾ ഇക്കൊല്ലം അങ്ങനെയാണ് മറ്റേത് ഇടവപ്പാതി പകുതി ആകുമ്പോഴേക്ക് തന്നെ വെള്ളം കിണറുകളിൽ ഒക്കെ ഇവിടെ നിറയലുണ്ട് ഇപ്പോൾ ഇടവപ്പാതി ഇല്ല ഒരു ഇതും ഇല്ല നാളെ മിഥുനം ഒന്നാണ് ഇനി നാളെയും നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ട് മഴ പെയ്യുമോ അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലത്തും പിന്നെ കൃഷികൾ മഴക്കാലത്ത് മഞ്ഞൾ കൃഷി ഇതൊക്കെ ചെയ്യലുണ്ട് ഞങ്ങൾ തന്നെ ചെയ്യും മഴക്കാലത്ത് ഇപ്പോൾ മഞ്ഞൾ കൃഷിയൊക്കെ നട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം ഇപ്പം ഓരോന്ന് മുളച്ച് വരുന്നുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തോലും വളമൊക്കെ വച്ച് മണ്ണിട്ട് മൂടി എന്നാലേ മണ്ണ് എത്രത്തോളം ചെല്ലണ് അത്രത്തോളം അടിയിൽ മഞ്ഞൾ വിത്ത് ഉണ്ടാവും അങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യും നല്ലോണം മുട്ടിനറ്റം മണ്ണ് ഇട്ടിട്ട് പൊന്തിക്കണം എന്നാലേ നല്ലോണം മഞ്ഞളുണ്ടാവു ഞങ്ങൾ ഇവിടെ മഞ്ഞൾ ഒന്നും വാങ്ങലില്ല കടയിൽ നിന്ന് ഞങ്ങൾ കൊല്ലത്തിൽ മഞ്ഞൾ ഇവിടെ കൃഷി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് പറിച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കലാണ് എന്നിട്ട് മക്കൾക്ക് കൊണ്ട് കൊടുത്തയക്കാനും മരുമക്കൾക്കും ഒക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് ഉണക്കി പൊടിച്ച് ശരിയാക്കലാണ്